ഞങ്ങളുടെ പ്രദേശത്തുള്ള വർദ്ധിച്ചു വരുന്ന ടൂറിസ്റ്റ് സന്ദർശനങ്ങളെ നേരിടാൻ ഞങ്ങളെ അഭിപ്രായത്തിൽ ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിലൊക്കെ റിസോർട്ട് വേണം പിന്നെ ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കണം പിന്നെ ടൂറിസ്റ്റുകാർ വന്നിട്ടുള്ള വാഹനങ്ങൾ നിർത്തിയിടാനുള്ള സ്ഥലം വേണം അപ്പോൾ ഈ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായാൽ മാത്രമേ പിന്നെ ടൂറിസ്റ്റുകാർ കൂടുതൽ ഇവിടത്തേയ്ക്ക് വരാനും ഈ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് വന്നിട്ട് ആകുമ്പോൾ അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഇതൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഉണ്ടായിരിക്കണം അപ്പം മാത്രമേ കൂടുതൽ ടൂറിസ്റ്റുകാർ ഇവിടെ ആകർഷിക്കുകയുള്ളൂ ഇപ്പം പാലക്കൻത്തട്ടായാലും പൈതൽ മലയായാലും എല്ലാ സ്ഥലത്തായാലും ഈ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വേണം അപ്പോൾ എന്നാൽ മാത്രമേ നമ്മൾ കൂടുതൽ ഈ സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർക്ക് വണ്ടി പാർക്കിങ്ങ് ചെയ്യാൻ സൗകര്യം ഇല്ലാഞ്ഞാൽ അവർക്ക് അതൊരു പ്രശ്നമാണ് അതുപോലെ ഈ പൈതൽ മലയിലൊക്കെ കയറി കഴിഞ്ഞാൽ അവിടെ തന്നെ ഭക്ഷണ സൗകര്യവും എല്ലാം ഉണ്ടാകുമ്പോൾ അവർക്ക് അതു കൂടുതൽ സൗകര്യമാവും അല്ലെങ്കിൽ പിന്നെ പൈതൽ മലയിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പിന്നേയും കുറേ ദൂരം അതെല്ലാം എല്ലാവരേയും വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇതെല്ലാം ഈ ഭക്ഷണത്തിൻ്റെ കാര്യമായാലും പിന്നെ വാഹനം നിർത്തിയിടുന്ന കാര്യമായാലും അതൊക്കെ ഒന്നു ശ്രദ്ധിച്ചാൽതന്നെ പിന്നെ നമുക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടെല്ലാം പറ്റുന്നതായിരിക്കും